ഒരുപക്ഷെ ഞാൻ എടുത്തതിൽ വച്ച് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം കടലിനഭിമുഖമായി പഞ്ഞിമുട്ടായി വിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോയാണ് വൈകുന്നേരം സന്ധ്യാസമയം സന്ധ്യാസമയം കടൽത്തീരത്ത് കൂടെ നടന്ന് പോകുന്ന ആ വ്യക്തിയെ യാദൃശ്ചികമായി പകർത്തിയ ആ ഫോട്ടോയും പിന്നാമ്പുറത്ത് കടലിൽ കാണുന്ന ചുവന്ന് ചുവപ്പും ഓറഞ്ചും മഞ്ഞയും ഏകദേശം ഇരുണ്ട് വരുന്ന സന്ധ്യാസമയം പിന്നാമ്പുറമായി ക്രമീകരിച്ചുകൊണ്ട് ഇരുണ്ട നിറത്തിൽ തന്നെ പഞ്ഞിമുട്ടായി തോളിലേന്തികൊണ്ട് പോകുന്ന ആ വ്യക്തിയെ പകർത്താനെനിക്ക് കഴിഞ്ഞു ഒരു പക്ഷെ ജീവിതത്തിൻ്റെ നിഴലിച്ച ഇരുണ്ട സാഹചര്യങ്ങളിൽ പോലും പ്രകാശം വിതയ്ക്കുന്ന

ഒരു ജീവിതത്തിൻ്റെ പ്രതീകമായി ആ സന്ദർഭം ഞാൻ കണ്ടത്കൊണ്ടാണ് എനിക്ക് ആ ഫോട്ടോ മനോഹരമായി തോന്നുകയും അത് ഏറ്റവും ഇഷ്ട്ടപ്പെട്ടതായി തോന്നുകയും ചെയ്തത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യില് പഞ്ഞിമുട്ടായി ആണ് നമുക്കറിയാവുന്നത് പോലെ അത് മധുരമാണ് സ്വന്തം ജീവിതത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണെങ്കിലും മറ്റുള്ളവരിലേക്കും മധുരം പങ്കുവയ്ക്കാനായിട്ട് കഴിയുന്ന ഒരു ജീവിതമായി ഞാൻ അതിനെ കണക്കാക്കി അതോടൊപ്പം ആ സന്ധ്യാസമയത്തെ ആ പിന്നാമ്പുറം അത് സൂചിപ്പിക്കുന്നത് ഇരുണ്ട് വരു അസ്തമിക്കാൻ പോകുന്ന സൂര്യനും ഇരുണ്ട് വരുന്ന ആകാശവും അത് നമ്മുടെ ജീവിതത്തില് പല അനുഭവങ്ങളും നമ്മളെ ഓർമപ്പെടുത്തുന്ന ഒരു ഫോട്ടോ ആയിട്ട് ഞാൻ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും ഓർത്തെടുക്കാൻ കഴിയുന്ന അല്ലെങ്കില് ഓർമ്മിപ്പിക്കാൻ കഴിവുള്ള ഒരു ഫോട്ടോയായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് അത്കൊണ്ട് ആ ഫോട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊര് ഫോട്ടോയും ഒരു മനോഹരവുമായ ഫോട്ടോയുമായതുകൊണ്ട് ഞാൻ അത് സൂക്ഷിക്കുന്നു